ഞങ്ങളുടെ പ്രദേശത്തെ എം എൽ എ എന്നുപറയുന്നത് തോമസ്ച്ചാണ്ടി എന്നുപറയുന്ന ആ ആളാണ് രണ്ടാമത് ഇവിടുത്തെ എം പി എന്നുപറയുന്ന ആൾ കൊടിക്കുന്നിൽ സുരേഷ് ആണ് മൂന്നാമത് ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡൻ്റ് രാജുമോൻ എന്നു പറയുന്ന ആളാണ് ഈ എം എൽ എയെ സംബന്ധിച്ച് പറയുമ്പോൾ കുട്ടനാട്ടിലെ ജനങ്ങളെ നേരിട്ട് ആദ്യമായി അവരുടെ സംവദിക്കേണ്ട ആളാണ് ഇവിടുത്തെ എം എൽ എ എന്നു പറയുന്ന ആൾ പക്ഷെ ഞങ്ങൾക്ക് അദ്ദേഹത്തെ നേരിട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നതിനോ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ അദ്ദേഹത്തെ ലഭിക്കാറില്ല കുട്ടനാട്ടിലെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നുംതന്നെ ശരിക്കും പറഞ്ഞാൽ ഒന്നുംതന്നെ അങ്ങേര് സഹായിക്കുകയോ അല്ലെന്നുണ്ടങ്കിൽ ആവിശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യുകയോ ചെയ്യാറില്ല പിന്നെ എം പിയെ സംബന്ധിച്ച് പറയുമ്പോൾ വളരെ വിശാലമായ രീതിയിലുള്ള ഒരു പ്രദേശം ഉള്ള ഒരു ആളാണ് ഇവിടുത്തെ എം പി എങ്കിൽത്തന്നെ ആണെങ്കിലും ഈ അദ്ധേഹത്തിൻ്റെ കോൺസിസ്റ്റുവൻസിയിലുള്ള ഒരു മണ്ഡലം എന്നുള്ള നിലയിൽ കുട്ടനാടിനെ എടുത്ത് നോക്കിക്കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള സമയപരിമിധികൾക്കുള്ളിൽ നിന്നുകൊണ്ട് പരമാവധി കാര്യങ്ങളിൽ ഇടപെടാനും ആവശ്യമായ സഹായങ്ങൾ ചെയ്തു തരുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ഒരൂ ടാസ്ക്ക് അങ്ങേര് ഏറ്റെടുക്കാറുണ്ട് ഇവിടുത്തെ വെള്ളപ്പൊക്കമായാലും കൃഷിയുടെ ഭാഗമായി ബന്ധപ്പെട്ടുള്ള ദുരിതങ്ങളായാലും അങ്ങനെ പ്രാദേശികമായി ജനങ്ങൾ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളിലും പരമാവധി സമയം കണ്ടെത്തി ഇവിടെ ഈ പറയുന്ന രീതിയിൽ എം പി ഇടപെടാറുണ്ട് പ്രാദേശിക ഭരണ സംവിധാനം എന്നുള്ള നിലയിലും പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റ് അദ്ദേഹത്തിൻ്റെ പരിമിതമായ കഴിവിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ടുതന്നെ സാമ്പത്തിക പരിമിതിയിലും ഇതിൽ നിന്ന് കൊണ്ടും പരിധിയിൽ നിന്നു കൊണ്ട് അങ്ങേര് അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റാറുണ്ട് സാധാരണ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നൊരാളായതുകൊണ്ട് അദ്ദേഹം ചെറിയ ഒരു പ്രദേശത്തിൻ്റെ ഭാഗത്തിൻ്റെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ അങ്ങേര് പൂർണ്ണമായും പൊതുരംഗത്ത് തന്നെ നിന്നുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് അങ്ങേരുടെ പ്രവത്തനങ്ങളും നല്ല രീതിയിൽ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം